ഹലോ ഞാൻ ഓൺലൈനിൽ ഒരു അയൺബോക്സ് ഓഡർ ചെയ്തിരുന്നു അതിതുവരെ കിട്ടിയിട്ടില്ല അത് ട്രാക്ക് ചെയ്യാനായിട്ട് ട്രാക്കിംഗ് ഐ ഡി തരുമോ കാരണം ഞാൻ എൻ്റെ പേയ്മെൻ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം പിന്നെ എൻ്റെ പർച്ചേസിങ്ങ് ഡീറ്റെയിൽസും അയച്ചു തരാം അപ്പോൾ അതനുസരിച്ച് എനിക്ക് നിങ്ങളുടെ നിങ്ങൾ ഉപകരണം അയച്ചിട്ടുണ്ടെങ്കിൽ അത് അയൺബോക്സ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഐ ഡി അയച്ചു തരുമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് വിശദമാക്കുമോ അതറിയാനായിട്ട് ആഗ്രഹിക്കുന്നു